പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി രണ്ട് പതിനാല് അഞ്ച് രണ്ടായിരത്തി മൂന്ന് ഏഴ് രണ്ട് രണ്ടായിരത്തി ആറ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഏഴ് എട്ട് രണ്ടായിരത്തി പത്ത്